ഹലോ ആരായിരുന്നു ഞങ്ങൾക്ക് സ്നാക്സ് കൊടുക്കാൻ പറ്റിയ പഫ്സ് ഉണ്ട് പഴംബോളി ഉണ്ട് പിന്നെ മീറ്റ് റോൾ ഉണ്ട് ബനാന പഫ്സ് ഉണ്ട് എഗ്ഗ് പഫ്സ് ഉണ്ട് പിന്നെ ചെറിയ എന്താണ് പരിപ്പ് വട ബോണ്ട അങ്ങനെയുള്ള ചെറിയ സ്നാക്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏതൊക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണ്

ആ മൊത്തം എഗ്ഗ് പഫ്സ് ആണോ വേണ്ടത് അതോ വേറെ എന്തെങ്കിലും കൂടെ വേണോ ആ ഓക്കെ ഓക്കെ എന്നത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും നിങ്ങൾക്കത് ഏത് ഭാഗത്തായിട്ടാണെന്നാണ് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ കൊടുത്ത് വിടാം കൊടുത്ത് വിടാം ആ ഒരു ഒരായിരം രൂപയൊക്കെ ആകും ഒരാൾക്കൊരു അൻപത് രൂപയൊക്കെ വെച്ച് ആകും